ഹലോ ആ കോഴിക്കോടുള്ള ടു വീലർ റെൻ്റൽ കമ്പനിയായിരുന്നു ആരായിരുന്നു ആ ആ പറഞ്ഞോളൂ ട്രിപ്പടിക്കാൻ വേണ്ടിയിട്ടാണോ ആ ഓഫ്റോഡ് ഒക്കെ പോവാൻ പറ്റിയ നമ്മൾക്ക് ഇപ്പോൾ ഇവടെ ഹിമാലയ ഉണ്ട് പിന്നെ എക്സ്പൾസ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ട് പിന്നെ ഡൊമിനോർ പിന്നെ നമ്മൾക്ക് ആർസീൻ്റെ വണ്ടി ഉണ്ട് പിന്നെ ഡ്യൂക്ക് ഏത് വണ്ടി ആണ് മാമിന് വേണ്ടതെന്ന് വച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽമതി നമ്മൾ അതെല്ലാം റെഡിയാക്കിത്തരാം ആ എമൗണ്ട് ഇപ്പോൾ സ്കൂട്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊരു ഫോർ ഡബിൾ നയണിൽ സ്റ്റാർട്ട് ചെയ്യും ആ ആ റേറ്റ് ബാക്കി ഉള്ളതിനൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും വരിക

ആ എല്ലാവർക്കും വണ്ടി ഉണ്ട് നമുക്ക് ഇവിടെ ഒരു മാക്സിമം ഒരു പത്ത് അഞ്ഞൂറ് വണ്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് മാക്സിമം നിങ്ങൾക്ക് ഏതാണോ വണ്ടി വേണ്ടത് അത് നമ്മൾക്ക് റെഡി ആക്കിത്തരാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ വേറെ ഷോപ്പ് ഉണ്ട് അവിടെനിന്ന് നമ്മൾക്ക് റെഡി ആക്കാം രണ്ടു പേർക്ക് ഹിമാലയൻ അല്ലേ എത്ര ദിവസത്തേക്കാണ് ട്രിപ്പ് പോവുന്നത് പത്ത് ദിവസത്തെ ആണോ ആ ഓക്കെ ഓക്കെ പത്ത് ദിവസത്തെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് സെറ്റ് ആക്കിത്തരാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ആ അല്ല അല്ല നമ്മൾ പെർ ഡേക്ക് ആണ് എമൗണ്ട് വരുന്നത് ഇപ്പോൾ ഹിമാലയക്കൊക്കെ ആണെങ്കിൽ ത്രീ തൗസൻ്റ് റുപ്പീസ് ആണ് പെർ ഡേ വരുന്നത്

അഞ്ച് വണ്ടിയുണ്ട് ആ അപ്പം നമ്മൾക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു തരാം കുഴപ്പമൊന്നും ഇല്ല

ആ ഓക്കെ ഓക്കെ പറഞ്ഞാൽമതി ആ പിന്നെ സ്ഥലം നമ്മൾക്ക് ഇവിടെ ടൗണിൽ തന്നെയാണ് നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഉള്ള ഒരു വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഷോപ്പ് ആ ഈ നമ്പർ തന്നെ ഞാൻ വേണമെങ്കിൽ ലൊക്കേഷൻ വാട്ട്സ്ആപ്പ് ചെയ്തു തരാം വരുമ്പോൾ എന്തുചെയ്യാം അധാർ കാർഡ് കൊണ്ടുവരിക നമുക്ക് അതാണ് മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത് അത് ഇവിടെ മേടിച്ചു വയ്ക്കും നിങ്ങൾ പിന്നെ വണ്ടി കൊണ്ടുവയ്ക്കുക തന്നതിന് ശേഷം ബാക്കി പ്രൊസീജ്യറ് ഒരാളുടെ മതി ഒരാളുടെ മതി ഓക്കെ ഓക്കെ എന്നാൽ വേറെ ഒന്നും വേണ്ട അതു മാത്രം മതി

ആദ്യം അഡ്വാൻസ് നമ്മൾക്ക് പതിനായിരം രൂപ ചെയ്യണം ഇപ്പോൾ ഇനി ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കും പിന്നെ റെൻറ്റ് പൈസ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുത്തന്നാൽ മതി അഡ്വാൻസ് പേയ്മെൻ്റ് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് തരില്ല അതും കൂടെ ഓർക്കുക അത്രെയുള്ളൂ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാം മാഡം വന്നാൽമതി

ആ മതി മതി ആ ശരി